നമ്മുടെ ഈ ഇതിന് ചുറ്റും ഒത്തിരി വ്യവസായ കമ്പനികളുണ്ട് വളർന്നു വരുന്ന ഒത്തിരി ഒത്തിരി വ്യവസായ കമ്പനി ബ്രെഡിൻ്റെ ഉണ്ട് ബ്രെഡിൻ്റെ വ്യവസായ കമ്പനികൾ ഒത്തിരി പേര് നിത്യവും പണി പണിക്ക് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതേപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ ഈസ്റ്റേൺ അതായത് കറി പൗഡർ ഈസ്റ്റേർണിൻ്റെ തന്നെ കുറെ പ്രൊഡക്ടുകളുണ്ട് പിന്നെ പുട്ട് പൊടി അരി അരി മാവ് അരിച്ചത് അങ്ങനെ കുറെ ഈസ്റ്റേണിൻ്റെ പ്രോഡക്ട് ഉണ്ട് അങ്ങനെ ഉള്ളത് ചെരുപ്പ് കമ്പനികള് പിന്നെ തുണിൻ്റെ ഗോ ഡൗണുകള് പിന്നെ കുറെ കുറെ ഇത് അതായത് വ്യവസായ മേഖല ഏതൊക്കെ രീതിയില് വ്യവസായ മേഖല പിന്നെ മുന്നോട്ട് വരുന്നു ആ രീതിയില് ഒക്കെയുള്ള എല്ലാ സംഭ്രമങ്ങളും എല്ലാ ഇടത്തും എത്തിയിട്ടുണ്ട് അവിടെ ഒത്തിരി അതികം ആൾക്കാര് പണിക്കും പണിക്ക് കിട്ടാൻ ഒത്തിരി ആൾക്കാർക്ക് പണിയെടുക്കുന്നുണ്ട് അവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അപ്പോൾ പിന്നെ കുറെ കാര്യങ്ങള് പാക്കിങ് കാര്യങ്ങള് നമ്മള് ഓരോ സ്ഥലത്തേക്ക് പാക്ക് ചെയ്യുന്ന സാധങ്ങള് പാക്ക് ചെയ്യല് പിന്നെ ബേക്കറി അതായത് ഓരോന്നും ഉണ്ടാകുന്നത് ബേക്കറികൾ ഉണ്ടാക്കി കൊടുക്കും ഹൽവ പോലുള്ള ഒത്തിരി ഇത് സാധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒത്തിരി ഒത്തിരി കമ്പനികളുണ്ട് വ്യവസായം ചെറുകിട വ്യവസായമാണ് അവിടെ നടന്ന് കൊണ്ടിരിക്കുന്നത്